ഒരുപാട് നൃത്ത മത്സരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല പക്ഷെ പങ്കെടുത്ത ചുരുക്കം ചിലത് ഇപ്പോഴും മനസ്സിൽ തട്ടി നിൽക്കുന്നയാണ് അങ്ങനെയൊന്നാണ് ഈ അടുത്ത് ഞങ്ങളുടെ കോളേജിൽ ഫൈൻ ആർട്സ് ഡേയ്ക്ക് ഞാൻ അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസ് ഈ ഗ്രൂപ്പ് ഡാൻസിൻ്റെ മെയിൻ തീമെന്ന് പറയുന്നത് നാഗപാട്ടും തെയ്യം ഒക്കെയാണ് ഒരു കോളേജ് വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാനും എൻ്റെ കൂട്ടുകാരികളെപ്പോലെ അല്ലെങ്കിൽ സഹപാഠികളെപ്പോലെ ഒരു മുടക്ക് കിട്ടിയാൽ വീട്ടിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് വീട്ടിലിരിക്കണ്ട ഞങ്ങൾ കോളേജിൽ വന്ന് പ്രാക്ടീസ് ചെയ്തോളാം എന്നു പറഞ്ഞ് മുൻപോട്ടു വന്ന എൻ്റെ ഗ്രൂപ്പിലെ മറ്റ് കൂട്ടുകാരികളെ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു തീർച്ചയായും അവരുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള സമർപ്പണം തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിന് പിന്നിലെ രഹസ്യവും പ്രോഗ്രാമിൻ്റെ അന്നും ഞങ്ങൾക്കത്ര അനുകൂല സാഹചര്യം ആയിരുന്നില്ല മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉള്ള എനർജി മൊത്തം ഞങ്ങൾ റിഹേസൽ എന്നു പറഞ്ഞ് തീർത്തിട്ടുണ്ടായിരുന്നു കാലാവസ്ഥയും ഞങ്ങൾക്ക് എതിരു നിന്നത് പോലെയായിരുന്നു അന്ന് നല്ല ചൂട് അതോടൊപ്പം തന്നെ അന്ന് ഞങ്ങൾ നൃത്തം ചെയ്യാൻ ഉദ്ദേശിച്ച ഡ്രസ്സും അത്ര കട്ടിയുള്ള ഡ്രസ്സുമായിരുന്നു എല്ലാം കൊണ്ടും എൻ്റെ ഗ്രൂപ്പിലെ എല്ലാ കൂട്ടുകാരികളും വളരെ ക്ഷീണിതരായായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങൾ മുഴുവൻ എനർജിയും എടുത്ത് കളിക്കുമെന്നു പറഞ്ഞ് അവരാ സ്റ്റേജിൽ കയറി നൃത്തം കഴിഞ്ഞ് അത് വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരുപാട് സന്തോഷവതിയായിരുന്നു നൃത്തം കഴിഞ്ഞ ആ മിനിറ്റ് ആ മിനിറ്റിൽ തന്നെ എല്ലാവരും തല കറങ്ങിയും എല്ലാ ഊർജവും നഷ്ടപ്പെട്ട പോലെ ആ സ്റ്റേജിലേക്ക് വീഴുകയുണ്ടായി അപ്പോഴാണെനിക്ക് ശരിക്കും അഭിമാനം തോന്നിയത് നൃത്തം കഴിയണ വരെ ആ ഒരു സെക്കൻഡ് വരെ അവർ എത്ര പിടിച്ചു നിന്നു എന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത് അതിൽ തെയ്യം എടുത്ത ഒരു കുട്ടിയുണ്ട് അവളെ ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് രോമാഞ്ചം തോന്നും എന്നു തന്നെ പറയാം ആ തെയ്യം വെച്ചിട്ട് കളിച്ചിട്ട് അവൾ അത് പിടിച്ച് ന് എത്ര തല കറക്കം വന്നിട്ടും അവൾ അത് പിടിച്ചു നിന്നതാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉള്ള ഒരു രൂപം എന്നു പറയുന്നത്